സാങ്കേതിക വിദ്യയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ നാടിനുണ്ടാക്കിയിട്ടുള്ള വികസ വികസനമെന്ന് പറയുന്നത് വളരെ വലുതാണ് പിന്നിതൊക്കെ വ്യക്തിപരമായി എല്ലാവരും ആർജ്ജിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയകരമാണ് കാരണം ഒത്തിരിയേറെ കാര്യങ്ങൾ ഫോണും ഇൻറ്റെർനെറ്റുമൊക്കെ ഉപയോഗിച്ച് ചെയ്യേണ്ട രീതിയിലാക്കിയിട്ടുണ്ടെങ്കിലും ഗ്രാമീണ ജനതക്ക് ഇതത്ര എളുപ്പമുള്ള സംഭവമായി തോന്നുന്നുണ്ടോ എന്നതിൽ സംശയമുണ്ട് പുതിയ തലമുറ ഇതൊക്കെ സ്വീകരിച്ചിട്ടുണ്ടെന്നുള്ളതൊരു വസ്തുതയാണ് താനും അതോടൊപ്പം തന്നെ ആ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള തട്ടിപ്പുകളും നമ്മുടെ രാജ്യത്ത് കൂടിയിട്ടുണ്ട് ദിനംപ്രതി കോടിക്കണക്കിന് രൂപ കൈമറിഞ്ഞ് പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മള് മാധ്യമങ്ങളിലൂടെ വായിക്കുന്നുണ്ട് വ്യക്തിപരമായി ഞാനും ഈ ഫോണിൻ്റെ അല്ലെങ്കില് ഇൻറ്റെനെറ്റിൻ്റെ ഉപയോഗത്തില് പുറകിലാണ് എന്നുള്ളത് സമ്മതിക്കേണ്ടി വരുന്നു സാങ്കേതിക വിദ്യ ഒത്തിരിയേറെ കാര്യങ്ങളിൽ നമുക്ക് സഹായകരാമായിട്ടുണ്ടെന്നുള് ത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് കാരണം വിവരങ്ങൾ അപ്പഴപ്പോളറിയാൻ സാധിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല അതുപോലെ തന്നെ എന്തെങ്കിലൊരു കാര്യത്തിന് വേണ്ടി അത് നടക്കുന്ന സ്ഥലം വരെ യാത്രെയ്ത് പോകാതെ വീട്ടിലിരുന്നു തന്നെ നമുക്ക് അത് പ്രയോജനപ്പെടുത്തുന്നതിന് സാധിക്കുന്നുണ്ട് ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നതിന് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പണം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിന് പേയ്മെൻറ്റുകൾ നടത്തുന്നതിന് ഷോപ്പിങ്ങ് സ്ഥലത്ത് ഉപയോഗിക്കുന്നതിന് ഏത് വിവരങ്ങളും നമുക്ക് മനസ്സിലാക്കുന്നതിന് എല്ലാ അങ്ങനെ നൂറ് നൂറ് കാര്യങ്ങളിൽ നമുക്ക് ഒത്തിരിയേറെ സമയ ലാഭം അതുപോലെ തന്നെ പണം കൊണ്ടുപോയാൽ സംഭവിക്കാവുന്ന അസ്വാഭാവിക സാഹചര്യങ്ങൾ ഇതിനൊക്കെ ഒഴിവാക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ സാങ്കേതിക വിദ്യ നമ്മുടെ രാജ്യത്ത് വരുത്തിയ മാറ്റങ്ങൾ ഒരിക്കലും നമുക്ക് തിരസ്ക്കരിക്കാനാവില്ല അതേറ്റവും വലിയത് തന്നെയാണ് പിന്നെ അത് ഉപയോഗപ്പെടുത്തുന്നതിന് ആളുകൾക്കുള്ള പരിമിതികൾ അത് വാസ്തവത്തിൽ പരിഹരിക്കപ്പെടേണ്ടതുമാണ് റേഞ്ചില്ലായ്മ്മയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒത്തിരിയേറെ വലിയ ഒരു സംഖ്യയെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് അപ്പോള് അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കി എല്ലാവർക്കും ഈ സാങ്കേതിക വിദ്യയുടെ പ്രയോജനം അത് ശരിയായ രീതിയിലുണ്ടാകുന്നതിനുള്ള നടപടികളാണ് ഉണ്ടാവേണ്ടത്